ഹലോ ഹലോ ആ ഇത്

ആ ഓഫർ ഇപ്പഴും നിലവിൽ ഉണ്ടോ അതോ ഡേറ്റ് കഴിയുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ ആ നിലവിൽ ഉണ്ടല്ലേ ഓക്കെ എനിക്ക് ആ എനിക്ക് ചെന്നൈയിലേക്ക് ആയിരുന്നു ടിക്കറ്റ് ആ ചെന്നൈ ചെന്നൈ

അ പതിമൂന്നാം തീയതി രാവിലത്തെ രാവിലത്തെ ട്രെയിനിന് അതെ അതെ

ഒരാൾക്കായിട്ട് ടിക്കറ്റ് എടുത്താൽ ഓഫർ കിട്ടുമോ